ആ വരൂ ആ വിളിച്ച് ഉണ്ടായിരുന്നു വിളിച്ച് ഉണ്ടായിരുന്നു എത്ര ദിവസമായി ഏട്ടാ വിളിച്ചിട്ട് രണ്ട് ദിവസത്തിന് മേലേ ആയല്ലോ നിങ്ങൾ എന്താണ് ഈ കാണിക്കണേ നമ്മുടെ റീചാർജ് വെറുതെ പോകല്ലേ

ഒന്ന് വിളിച്ചാൽ മതി ആയിരുന്നല്ലോ നമ്മൾ അങ്ങോട്ട് വരുമല്ലോ ശരി പോട്ടെ വേഗം ചെയ്യുന്നുണ്ടോ ഇനി ഇപ്പോൾ ഇല്ല ഞാൻ അതിനെ കുറിച്ചിട്ട് ഞാൻ കേബിളായിരുന്നു ഉപയോഗിച്ചിട്ട് ഉണ്ടായിരുന്നത് അത് ഇപ്പം ഒരു ഇതേമാതിരി മഴയും കാര്യങ്ങളൊക്കെ ആയതു കൊണ്ട് കട്ട് ആയി കട്ട് ആയി പോണ കാരണം കൊണ്ട് പിന്നെ അത് വേണ്ട ഡിഷ് എടുക്കാം പറഞ്ഞിട്ട് വിളിച്ചത് ആ ഓക്കെ റീചാർജ് ഇപ്പോൾ നമ്മൾ അതിന് മറ്റേ നൂറ്റി എൺപതും ആ ഇരുന്നൂറ്റൻപത് രൂപക്ക് എല്ലാം കൂടി കിട്ടുകയാണേ നല്ല പാക്കേജ് ആണല്ലോ അത് മതി എന്നാൽ അതു തന്നെ ആയിക്കോട്ടെ ആ ആ നമുക്ക് ആ അപ്പുറത്ത് ഓപ്പൺ ഏരിയ ആണ് കുഴപ്പം ഇല്ല ആ അതാ നല്ലത് ഇത് ആകുമ്പം തെങ്ങും പട്ട ഒക്കെ ഇടക്ക് ഇടയ്ക്ക് വീഴും മറ്റേത് ഓപ്പൺ ഏരിയ ആണ് അവിടെ തെങ്ങും അങ്ങനത്തെ ഒന്നും ഇല്ല അവിടെ ബാക്ക് സൈഡ് ആയതു കൊണ്ട് പിന്നെ വേറെ ബുദ്ധിമുട്ടും ഇല്ല അതുപോലെ അപ്പുറത്തെ ഇത് മരങ്ങൾ ഒന്നും ഇല്ല അപ്പം ടീ വി ഹാളിൽ ഒരു ടി വി ഉണ്ട് മറ്റേ അതുപോലെ മകൻ്റെ മുകളിലത്തെ റൂമിൽ ഒരു ടി വി ഉണ്ട് ആ ഒന്നിൽ നിന്ന് രണ്ട് ആക്കേണ്ടി വരും ടീ വീൻ്റെ അവിടേക്ക് നമുക്ക് ഒരു കാര്യം ചെയ്യാം ഈ ഇതിൽ നിന്ന് നേരെ മുകളിലത്തെ റൂമിലേക്ക് കൊടുത്തിട്ട് അവടെ നിന്ന് താഴത്തെ റൂമിലേക്ക് എടുക്കാം അപ്പോൾ കുറച്ചും കൂടി എളുപ്പം ആകില്ലേ അത് ആണ് മെയിൻ മെയിനിൽ നിന്നും ഈ റൂമീലേക്ക് കൊടുത്താൽ ഞാൻ മുകളിലത്തെ റൂമിലേക്ക് കൊടുക്കുമ്പം കുറച്ചും കൂടി ബെറ്റർ ആയിരിക്കും എന്ന് തോന്നണു അപ്പം നമുക്ക് ഇപ്പം നിങ്ങൾ കൊണ്ടു വന്ന വയർ അത്രയും ഒരു ആറും എട്ട് പത്ത് മീറ്റർ ഉണ്ടാകും അവൻ്റെ റൂമിലേക്ക് പിന്നെ അവിടെ നിന്ന് ഇങ്ങോട്ട് ഒരു പത്ത് മീറ്ററിൻ്റെ ഒരു വയറും കൂടി വേണ്ടി വരും ആ ഓക്കെ നിങ്ങളുടെ നമ്പർ തന്നാൽ മതി നിങ്ങളെ നേരത്തെ വിളിച്ച നമ്പറിൽ വിളിച്ചാൽ നിങ്ങളെ കിട്ടുമോ

ആ ഇതുപോലെ ലേറ്റ് ആവില്ലല്ലോ ഓക്കെ ഓക്കെ ആ ശരി എന്നാൽ തത്ക്കാലം ഇപ്പം അത് അവിടെ തന്നെ ഫിക്സ് ചെയ്തോളൂ അപ്പം നിങ്ങളെ വേറെ ബുദ്ധിമുട്ട് ഉണ്ടെങ്കിൽ ഞാൻ വിളിക്കാം ആ ഞാൻ എന്നാൽ ഒന്ന് പുറത്ത് പോണ് നിങ്ങൾ അത് ഫിക്സ് ചെയ്തിട്ട് പൈസ അവിടെ കൊടുത്ത് വെക്കാം നിങ്ങൾ മേടിച്ചിട്ട് പൊക്കോളീൻ ശരി ശരി